ആ ചേട്ടാ ഞാൻ ഓട്ടോ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇവിടെ പാലക്കാട്ടിലോട്ടാണ് എനിക്ക് പോകണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഡ്രൈവർ എങ്ങനെയാണ് ഉടൻ എത്തുമോ എനിക്ക് അവിടെ പോയിട്ട് വേറൊരു അത്യാവശ്യം ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഡ്രൈവർ എപ്പോഴാണ് വരിക കറക്റ്റായ സമയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയത്ത് തന്നെ എത്തുമോ